ഹലോ എടി പിന്നേ എൻ്റേതിൽ ഡിജിലോക്കറിൻ്റെ അക്കൗണ്ട് എന്തോ വെബ്സൈറ്റിൽ എന്തോ അതിന് സുരക്ഷയില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് ഒരു മെസ്സേജ് വന്നു കേട്ടോ അപ്പം ആ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് അങ്ങ് ആകെപ്പാടെ ഭയമായിട്ടിരിക്കുന്നു എന്തുവാ നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതായി പോകുമോ മിസ്പ്ലെയിസ് എന്തൊക്കെ ആയി പോകുമോ എന്നൊക്കെയുള്ള ഒരു പേടി അപ്പം നമുക്ക് തന്നെ നിനക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാലോ സൈബർ സുരക്ഷയെ കുറിച്ചൊക്കെ നിനക്കും നല്ലോണം അറിയാലോ അപ്പം നീ എനിക്ക് അതിനൊരു സഹായം ചെയ്തു തെരുമോ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പാസ്വേർഡുകളൊക്കെ മാറ്റേണ്ടുന്നത് മാറ്റാതിരുന്നാൽ പ്രശ്നമുണ്ടോ മാറ്റിയില്ലെങ്കിൽ അതൊന്നും വിഷയമാവത്തില്ലേ എനിക്ക് ആകപ്പാടെ അങ്ങൊരു വിഷമം അതുകൊണ്ട് നീ ദയവ് ചെയ്ത് അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം മാറ്റാൻ പറ്റുന്നതാണോ അതോ നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസുകൾ വല്ലതും കൊണ്ടു പോകണോ എന്തൊക്കെ കൊണ്ടു പോകണം ബാങ്കിൽ പോയി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചെല്ലാം ഒന്ന് പറയണേ ആകപ്പാടെ വിഷമമാണ് വിഷമത്തിൽ ഇരിക്കുവായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിടം തൊട്ട് ഇനി എന്തോ ചെയ്യാൻ പറ്റും